ആ സാറേ ഞാൻ ജോസഫ് ആണേ ആ സാറേ എനിക്ക് പിന്നെ എനിക്ക് ഒരു പ്രൊജെക്റ്റുവായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആടുജീവിതത്തിന്റെ ബുക്ക് ഒന്ന് കിട്ടുമോ ആണോ സാറേ അത് എന്നാൽ സാറേ അത് അത് എന്ന് കിട്ടാന് പറ്റും എനിക്ക് ഇന്ന് വളരെ അത്യാവശ്യം ഉള്ള കാര്യമാ രണ്ടാഴ്ചയോ അപ്പോൾ എനിക്ക് ഇപ്പോൾ രണ്ടാഴ്ചക്ക് മുമ്പ് എനിക്ക് പ്രോജെക്റ്റ് കൊടുക്കുകയും വേണമല്ലോ അപ്പം ഞാൻ ഇനി അതിന് മുമ്പ് ഒന്ന് എനിക്ക് കിട്ടാന് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ സാറെ ആ കുട്ടി ഏതാണെന്ന് അല്ലെങ്കിൽ ഒന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഒന്ന് അദ്ദേഹത്തെ ഒന്ന് കോണ്ഡാക്റ്റ് ചെയ്താലോ ആ

അയ്യോ സാറെ അതിലും വലിയ വലിയ ലംഘനമല്ലേ അങ്ങനനെ ആണേ ആ ആളിന്റെ പേരൊന്ന് പറഞ്ഞ് തരാമോ ഞാന് എന്നാൽ അദ്ദേഹത്തെ ഒന്ന് പറയാം സാറിനെ ഒന്ന് വിളിക്കാന് പറയാം ആ ലില്ലിക്കുട്ടി ആ ലില്ലിക്കുട്ടിയെ എനിക്ക് നല്ല പരിചയം ഉണ്ട് സാറെ ഞാന് എന്നാൽ ലില്ലിക്കുട്ടി ലില്ലിക്കുട്ടിയെ എനിക്ക് ആ അറിയാം ആ ഞാൻ ലില്ലിക്കുട്ടിയുടെ സാറ് സാറിനോട് ഒന്ന് സംസാരിക്കാന് പറയാം സാറിനെ വിളിക്കാൻ പറയാം ആ ഓ ശരിയാ അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് ഇന്ന് തന്നെ പോവാം ആ ആ ഇന്ന് തന്നെ പോവാം ഇന്ന് തന്നെ പോയിട്ട് ഞാൻ അവരോട് പറയാം ലില്ലിക്കുട്ടി കൊണ്ടുപോയിട്ടേ അപ്പോൾ ഞാൻ അങ്ങനെ ബുക്ക് മേടിച്ചാലെ എനിക്ക് എത്ര എത്ര എത്ര ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ടാഴ്ച്ചേ നമുക്ക് സമയം തരത്തുള്ളൂ അല്ലേ ആ ആ രണ്ടാഴ്ച് കഴിഞ്ഞ് രണ്ടാഴ്ച കൂടെ വേണമെങ്കിലോ എനിക്ക് പ്രോജെക്റ്റ് തീരാനായിട്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് വായിക്കേണ്ട ഒന്നല്ലേ എനിക്ക് രണ്ടാഴ്ച കൂടെ ചോദിക്കാന് പറ്റുമോ ചെയ്ത് തരാൻ പറ്റും സാറ് വിചാരിച്ചാൽ നടക്കും ഫൈൻ വല്ലതും ഉണ്ടോ സാറെ ഞാൻ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആ ആ ആ അതെ അതെ അപ്പോൾ ഞാനേ ഞാൻ ലില്ലിക്കുട്ടിയെ വിളിക്കാം ലില്ലിക്കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ ബുക്ക് ബുക്ക് കൊണ്ടുവരാൻ പറയാം ബുക്ക് കൊണ്ടുവരാൻ പറയാം ആ ശരി സാറെ എല്ലാ സഹകരണത്തിനും നന്ദി